എനിക്ക് ഉടനെ തന്നെ എൻ്റെ മകളുടെ അടുത്ത് വെളിയിലോട്ട് പോവേണ്ട ഒരത്യാവശ്യമുണ്ട് അപ്പോള് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൻറ്റൊര് ഒരു പേപ്പറെൻ്റെ കയ്യിലിരിപ്പുണ്ട് അതുകൊണ്ട് സ്കാൻ ചെയ്തെടുക്കാന് പറ്റുമോ എന്നൊന്നും അറിയില്ല ഫോണില് അതെങ്ങനെ എടുക്കണമെന്ന് എനിക്കറിഞ്ഞുകൂടാ സ്കാനറും ഇല്ല അപ്പോള് അതെങ്ങനെയാണ് എടുത്തുതരേണ്ടേന്നൊന്ന് സഹായിച്ചുതന്നാൽ നന്നായിരിക്കും ഒന്ന് സഹായിക്കാൻ പറ്റുമോ അതാണ് എനിക്കറിയേണ്ടത് അല്ലെങ്കില് പിന്നെ പോവാൻ വീണ്ടും കാലതാമസം വരികയും അതിൻ്റെ ബുദ്ധിമുട്ടുകളനുഭവി എനിക്കതിനെപ്പറ്റി ഒരു വിവരവും ഇല്ല അതുകൊണ്ടാണ്